കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ നിന്നാണ് ഞാനൊരു ജീൻസ് പാൻറ്റെടുത്തത് ഏകദേശമൊരു എണ്ണൂറ് രൂപ വിലയുള്ള സാധനം നല്ല കോളിറ്റിയും അത്യാവശ്യം കാണാൻ രസമുള്ള ഒരു ജീൻസാണ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപാ റേഞ്ചിലൊക്കെ തോന്നിക്കുന്നൊരു ഷർട്ട് പാൻറ്റ് ടസ്ക്കിൻ ടൈപ്പ് മറ്റേ ഈ സ്ട്രെച്ചിബിൾ സ്ട്രെച്ചിബിൾ മോഡൽ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തണ്ണൂറ് രൂപ വരെ റേഞ്ച് തോന്നിക്കുന്ന പാൻറ്റാണ്